കലയിലും കര കൗശലത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം അടുത്ത് ഞാനൊരു ഇൻറ്റർവ്യൂ കണ്ടു അതിൽ മല്ലിക സുകുമാരൻ്റെ ചിത്രം ഒരാൾ പശ വച്ച് വരച്ചിട്ട് പിന്നെ അതിൻ്റെ മേലൂടെ തിളക്കപ്പൊടി ഇട്ട് അപ്പോൾ അത് മല്ലിക മല്ലിക ചേച്ചിൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രമായിട്ട് വന്നു അത് ആ കലാകാരൻ്റെ കിട്ടിയ വലിയ ഒരു അംഗീകാരമാണ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് എല്ലാ എല്ലാവരും അയാളെ അറിയപ്പെട്ടത് പിന്നെ ടീ വിയിൽ വരുന്ന റിയാലിറ്റി ഷോ ഡി ഫോർ ഡാൻസ് പറഞ്ഞാൽ അത് അത് പറഞ്ഞാൽ കുറേ കുട്ടികൾ ഡാൻസ് ചെയ്യുക രണ്ടുമൂന്ന് ജഡ്ജെസ്സ് അതിന് മാർക്കിടുക എന്നിട്ട് അതിൽ നല്ല കഴിവുള്ള ആൾക്കാർക്ക് സമ്മാനമായിട്ട് പൈസയോ ഫ്ലാറ്റോ അങ്ങനെയൊക്ക കൊടുക്കുക അതൊക്കെയൊരു ഇതുതന്നെയല്ലേ പിന്നെ ദേ ഷെഫ് അതും അങ്ങനെ തന്നെയാണ് അതിലും ഓരോരുത്തർ വന്നുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക അവരിങ്ങനെ ഇതാക്കുക അതൊക്കെ ഓരോരോ കലാകാരന്മാരിങ്ങനെ പ്രോത്സാൽഹിപ്പിക്കുന്ന പരിപാടിയാണ് ടോപ് സിംഗറ് അത് ചെറിയ കുട്ടികൾ പാട്ടുപാടിക്കൊണ്ട് പാട്ടിനായാലും അതും ഒക്കെ അങ്ങനെ തന്നെ എന്തോ ഒരു ഇത് കണ്ടീനി ഞാൻ യൂടൂബില് ആ കുട്ടി പിന്നെ യൂടൂബിൽ റോസ് ക്ലോക്ക് റോസിൻ്റെ അതൊക്കെ വച്ചുകൊണ്ട് അതിൻ്റെ ഇതളൊക്കെ വച്ചുകൊണ്ട് ക്ലോക്ക് ഉണ്ടാക്കി പിന്നെ കാലിഗ്രഫി ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇതാക്കിക്കൊണ്ട് അതിന് ഒരുലക്ഷം ഉർപ്യയൊക്ക ഒരു മാസത്തിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു പത്തുലക്ഷം ഉർപ്യയൊക്കെ ഒരു കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു